ആ അതെ സാറേ ആ സാറിൻ്റെ സ്ലം എവിടൊയിരുന്നു ഏലാ സാറിന് വണ്ടി ഏതായിരുന്നു

ഫൈയറൈഡറ് ആ ഓക്കെ സാർ ആ സാറിന് എങ്ങനത്തെ വാഷിംഗ ആയിരുന്നു വേണ്ടണ്ട് നമുക്കിവിടെ ഒത്തിരിയധികം വാഷിംഗ ഉണ്ടായിുന്ന നമുക്ക് നോർമൽ വാഷിംഗ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് വാഷിംഗ ഉണ്ട് അങ്ങനെ ഒത്തിരി വാഷിംഗ ഉണ്ട് പിന്നെ ഫുൾ ബോഡി വാഷിംഗ ഉണ്ട് വിത്ത് ഇൻ്ീരിയർ ലനിങ് ഉണ്ട ഫുൾ ബോഡി ആണോ അത് നമുക്ക് ഇൻറീരിയർ ഇൻീയർ ഇൻറീരിയർ ലനിങ് ഇൻറീരിർ ക്ലീനിങ്ങ്ോ കൊടുപ്പടാല്ലേ ആ വേറെന്തേലും നമക്ക് പോളിംഗങ്ങ്ങനെന്തേലും കാര്യങ്ങളും എന്തേലും ചെയ്യണോ പിപിഎഫ് ഉണ്ട് പിപിഎഫി്റെ തന്നെ നമുക്ക് കൊറേ ട്രാൻസ്ർ വെരുന്നുണ്ടേ പിപിഎഫ് നമുൊരു ഫിഫ്റ്റീൻ തൗസൻഡ് തൊട്ട് തന്നെ നമുക്ക് പിപിഎഫ് ഉണ്ട് വണ്ടികൾക്ക് കാരണം ബൈക്കി ബൈക്കിനും ഉണ്ട് ആ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ആ നമുക്ക് അത്യാവശ്യം സ പിപിഎഷനകത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്െന്ന് പറയുമ്പോത്തേതിനൊ ഒരു പതിനേഴായിരം സെവൻീൻ തൗസൻഡ് ആ റേഞ്ച് വരുന്നാണ് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് അതാണ് സാധാരണക്കാരർല്ലായാരും ചെയ്യുന്നത് ആ അതിനാണെങ്കി നമുക്ക് ഫൈവ് ഇയർ വാ അതിനാാണ് നമുക്ക് പൈയർ വാർ വാർ വാർ ഹലോ അഞ്ച് വർഷം വറണ്ടറ്റിയ ഉണ്ട് അഞ്ച് വർഷം അതായത് നമു അതിനകത്ത് എന്തേലും ഇ എന്തേലും പിിഎഫിനകത്ത് എന്തേലും ഡാമജസ് എന്തേലുംറക്ഷൻ എന്തേലുംേണംണ്ടെങ്ക നമക്ക് നമുക്ക് ചെയ്യാൻ പറ്റ അതിനകത്തന്നെ വാറണ്ടിക്കാത്തന്നെ അപ്പം അങ്ങനെയാണ് അതിൻ്റെ പേരുന്നത് വണ്ടി നമുക്ക് നിങ്ങക്കിപ്പം എങ്ങനെയാണോ കൺവീനിയൻന്റ് അത് പറഞ്ഞാ മതി ഇപ്പം നമക്ക് ഡോർ സ്റ്റലപ്പ ആയിട്ട് നമുക്ക് എടുത്ത് കൊണ്ടന്ന് നമുക്ക് വാഷ് ചെയ്ത് തിരിച്ച് കൊണ്ട് തരാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നല്ലാം നിങ്ങക്ക് വണെങ്കി നിങ്ങക്ക് വണെങ്കി വന്ന് ഇവിടെത്തന്നെ വന്ന് ചെയ്യാനുള്ളത് ഓപ്ഷനും ഉണ്ട് നിങ്ങക്ക് വരുവാണെങ്കി ഇവിടെ വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങക്ക് റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് വെയിറ്റ് ചെയ്യാനുള്ളേ ബിടി വന്നി എടുക്കുവാണെന്നണ്ടെ നമുക്കരു കിലോമീറ്റർനസരിച്ചാണ് അതിൻ് ഇത് വര നമുക്കൊരു പത്ത് കിലോമീറ്റർ ഉള്ളിലാണെന്നുണ്ടെങ്കി നമുക്ക് ചാർജ്ൊന്നും ഇല്ല ആ പത്ത് കിലോമീറ്ററി്റെ പൊറത്തോട്ട് അതായത് പത്ത് കിലോമീറ്റർ കൂടുതൽ ഉണ്ടെങ്കി നമക്ക് ചെറിയൊരു എമൗണ്ട് ചാർജ് വെരും ആ പിന്നെ നമുക്ക് ഈ പോളിഷീനാക തന്നെ ഒത്തിരിധികം കോട്ടിങ്സ് ഉണ്ട് െറമി കോട്ടിംഗ ഉണ്ട് ഗ്രഫൻ കോട്ടിംഗ ഉണ്ട് അങ്ങനെ ഒത്തിരി കോട്ടിങ്സ് ഉണ്ട് അ അപ്പോോയിമെൻറ് അപ്പോയ് തൊട്ടടുായിട്ട് നിക്ക് വേണെങ്ക നാെ ചെയ്യാംല്ലെങ്ക നാെഴിഞ്ഞോ എന്നന്ന് വേള്ളില് ചെയ്യാം അപ്പോൻമെൻ്റ് സാറ ഒരു ഡേറ്റ് വിളിച്ച് പറഞ്ഞാ നമുക്ക് ആ ലൊക്കേഷൻ സാറി പറഞ്ഞാ ഇത് ഡോ ഡെലിവറി എടുക്കാനണോ അതോ സാർന്നന് കൊണ്ട വരുവാണോ ആ അങ്ങനാണെന്നും അങ്ങനാണെന്നുണ്ടെങ്കി സാർ എൻ്റെ നമ്പറിലേക്ക് ലൊക്കേഷൻ ഒന്ന് വാട്ട്സആപ്പ് ചെയ്താ മതി ഞാൻ ആളുവായിട്ട് വന്ന് വണ്ടി എടുത്തോളാം ആ ഓക്കെ ഓക്കെ